നിരന്തരമായ പരിശ്രമത്തിലൂടെ ആർജിച്ചെടുക്കുന്നതാണ് പ്രവഷണൽ താരങ്ങൾ അവരുടെ കഴിവും കരുത്തുമൊക്കെ ഒന്നും ഒരു സുപ്രഭാതത്തിൽ വെറുതെ അവർക്ക് കിട്ടുന്ന ഒന്നുമല്ല അവർക്കുമുന്നിൽ ഉണ്ടായിരുന്നവരെക്കാളും നല്ലതായി തീരാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ശ്രമിക്കുന്നത് അപ്പോഴ് കായിക വിനോദങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലാളിത്യത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല മനുഷ്യത്വത്തിന് വേണമെങ്കിൽ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കാം പക്ഷെ അവിടെ ലാളിത്യത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല എത്രമാത്രം നല്ലതാകാൻ പറ്റുമോ കളിക്കളത്തിൽ നമ്മൾ എത്രമാത്രം നല്ലവരായി തീരുന്നോ അത്രയും നല്ലതാകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രൊവഷനലിസം കളികളിലെ ലളിതമായ സ്വഭാവത്തിന് ഭീഷണി ആണ് എന്ന് ചിന്തിക്കുമ്പോഴ് അത്രയും പ്രസക്തമായ ചോദ്യമൊന്നും അല്ല കാരണം ഓരോന്നിനിപ്പം ഒരു കലാമേഖല ആണെങ്കിൽ അവിടെ ലാളിത്യത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് പക്ഷേ നേരെ മറിച്ച് ഫുട്ബോള് പോലെ ഒരു കളത്തിൽ എത്ര ലാളിത്ത്യത്തോടെ കളിക്കുന്നു അതിനേക്കാട്ടിൽ ഉപരിയായിട്ട് എത്ര പ്രഫഷണൽ ആകാൻ പറ്റുന്നു അത് തന്നെ ആണ് ഭംഗിയായിരിക്കുന്നത്